കൃഷി മൃഗസംരക്ഷണം ചെറുകിട ബിസിനസ്സ് മരപ്പണി അറ്റക്കുറ്റപ്പണി മിൽ കോഴി വളർത്തൽ പശു വളർത്തൽ തുടങ്ങിയ പ്രാദേശിക തൊഴിലുകളെക്കുറിച്ച് കുട്ടികൾ പഠിക്കുന്നത് കുട്ടികൾക്ക് പഠിക്കുന്നതിനു വേണ്ടി വിളകളെക്കുറിച്ചും മറ്റു തൊഴിലുകളെ കുറിച്ചും അവർക്ക് പഠിക്കുന്നതിനു വേണ്ടി നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ എൻ എസ് എസ് അതായത് നാഷണൽ സർവ്വീസ് സ്കീം എന്നൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതൊരു ഒരു ഒരു നിശ്ചിത കാലയളവിൽ മനുഷ്യരെക്കുറിച്ച് കൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്ക് ലഭിച്ച് ലഭ്യമാക്കി തരുന്ന പഠനമാണത് അത് കൃഷിയെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ കൃഷിയിൽ കൂടുതൽ ഇപ്പോൾ നെൽകൃഷി നെൽകൃഷിയെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി ഞാനോരോ സ്കൂളുകളിലും പോകാറുണ്ട് അവിടെ പോയിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ അവരെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കാറുണ്ട് കാരണം കൃഷി നടത്തുന്ന സ്ഥലം അതായത് കൃഷി നമ്മുടെ നെൽ വയൽ വയൽ കൃഷി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വയലുകളിൽ പൂട്ടാനും പൂട്ടിക്കഴിഞ്ഞതിനു ശേഷം നെൽക്കതിർ വിതച്ചിടാനും അത് വിതക്കുന്നതിനു വേണ്ടി ഓരോ കുട്ടികളെയും മണ്ണെന്തെന്നറിഞ്ഞ് മഴയെ സ്നേഹിച്ച് ചെളിയെ ഇഷ്ടപ്പെട്ട് ചെളിയിൽ നടന്നു കൊണ്ട് ചെളിയിൽ ഓടിക്കളിച്ച് ചെളിയിൽ പന്ത് കളിച്ച് അതിൽ നിന്നും അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞു കാരണം അത് ഓരോ മണികളും വളർന്നു വന്നതിനു ശേഷം അവരത് പറിച്ചു മാറ്റി നടുകയും പിന്നീടത് വലുതായതിനു ശേഷം അത് വെട്ടി പുല്ലായി മാറി നെല്ലെടുത്തു നെൽക്കതിർ ആയി നോക്കി ഓരോന്നും ഓരോന്നിൻ്റെ കഴിവുകളോടെ ചെയ്തു തീർത്തു വരുന്നു അങ്ങനെ ഈ കുട്ടികൾ ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്